ഒൻപത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പതിനഞ്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പതിമൂന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇരുപത്തി രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന്